സംഗീതത്തിൽ വാദ്യോപകരണങ്ങളുടെ ഉപയോഗം വളരെയധികം പ്രശംസനീയമാണ് ആ ഒരു സംഗീതത്തെ സംഗീതാത്മകമാക്കുന്നതും ആൾക്കാർക്ക് ആസ്വദിക്കാനായിട്ട് ഉള്ള അവസരമുണ്ടാക്കുന്നതും ഈ ഒരു വാദ്യോപകരണങ്ങൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എനിക്ക് ഏതെങ്കിലും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനായിട്ട് അറിവില്ല എന്നാൽ എനിക്ക് ഏറ്റവും ആഗ്രഹം ഓടക്കുഴൽ എന്ന വാദ്യോപകരണം പഠിക്കണമെന്നാണ് കാരണം കേവലം ഒരു മുളംതണ്ടിൽ നിന്നും ഇത്രയും മനോഹരമായ ശബ്ദം പുറപ്പെടുന്നത് എങ്ങനെ എന്നുള്ളത് എപ്പോഴും എന്നെ ആശ്ചര്യമുളവാക്കിയിട്ടുള്ള ഒരു കാര്യംതന്നെ ആയിരുന്നു ഓടക്കുഴൽ വായിക്കുന്നവരിൽ കാണുന്ന ആ ഒരു പ്രത്യേക കഴിവും ശ്വാസം ശ്വാസം നിയന്ത്രിക്കാനും ആ ഒരു താളത്തിനനുസരിച്ച് പോകാനും അതിൽ വേണ്ട അറിവിൻ്റെയും വ്യാപ്തത ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട്തന്നെ എനിക്ക് ആ ഒരു വാദ്യോപകരണം പഠിക്കാൻ ആഗ്രഹം കൂടുതലാണ്